എൻ്റെ ജോലിയുടെ അല്ലെങ്കിൽ കരിയർൻ്റെ ഭാവി വളരെ നല്ലതായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം മികച്ച ഒരു സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ മികച്ച ഒരു കരിയറിലേക്ക് കയറിയെത്തുക എന്നുള്ളത് ഏതൊരു ചെറുപ്പക്കാരൻ്റെയും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയുടെയും ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിരിക്കും എല്ലാവർക്കും ഉള്ളത് പോലെ തന്നെ എനിക്കും അതുപോലെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് സോ കരിയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മള് നേടിയെടുക്കേണ്ട കുറെ സ്കിൽസ് അല്ലെങ്കിൽ കുറെ പാഠങ്ങളുണ്ട് അതില് ചിലതാണ് ഒന്നാമത്തെ ഹാർഡ്വർക് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കെരിയർ അല്ലെങ്കിൽ നല്ലൊരു ലൈഫ് സെറ്റിൽ ചെയ്യാൻ സെറ്റാക്കാൻ പറ്റും അതുപോലെ നമ്മുടെ ചിന്തകള് അതിനനുസരിച്ച് വലുതാക്കുക അതേപോലെ നമ്മടെ പ്രയത്നം എത്രത്തോളം നമുക്ക് കൂട്ടാൻ കഴിയുമോ അത്രത്തോളം നമ്മൾ ചെയ്യുക അതേപോലെ നോളെജ് നോളെജെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻറ്റാണ് നമ്മൾ ഒരു വ്യക്തി സക്സസായി മാറി എന്ന് പറയണമെങ്കിൽ ആൾക്കുള്ള നോളെജ് അത്ര അധികം വലുതായിരിക്കണം അതായത് ഏതൊരു മേഖലയേ പറ്റിയും ഒരു ബേസിക്കായിട്ടുള്ള നോളെജ് നമുക്ക് ഉണ്ടെങ്കിലെ നമുക്ക് എന്തെയ്യാൻ പറ്റുകയുള്ളു നല്ല രീതിയില് മുന്നേറാൻ കഴിയുകയുള്ളു സോ നമ്മൾ നമ്മുടെ കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു പർട്ടികുലർ ആ ഒരു ഫീല്ഡിനെപ്പറ്റിയുള്ള വ്യക്തമായ അല്ലെങ്കിൽ ആഴത്തിലുള്ള അറിവുകള് നമ്മളെ നല്ലൊരു സക്സസ്ഫുൾ ലൈഫിലേക്ക് എന്താ പറയുക എത്തിക്കാനായിട്ട് കാരണമാകും